നമ്മളിപ്പം കടയിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിൽ പിന്നെ വ്യാപാരികളുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് പൈസ കൂടുതലാണ് അതുപോലെ ഹോൾ സെയിൽ നിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ പൈസകളെല്ലാം കുറവായിരിക്കും നല്ല സാധനം കിട്ടും നമ്മളിപ്പം ഒരു കടയിൽ കയറി സാധനത്തിൻ്റെ വില ചോദിച്ചില്ലെങ്കിൽ അരിക്കാണെങ്കിൽ നാല്പത്തിയാറ് ഉറുപ്പിക അമ്പത്തൊന്ന് ഉറുപ്പിക തക്കാളിക്ക് അറുപത് രൂപ ഇപ്പോൾ നൂറ് രൂപ ആയെന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഹോൾ സെയിൽ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ലാഭം പച്ചക്കറികളെന്ന് പറയണമെങ്കില് നമ്മള് മേടിച്ച് കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ അത് കെട്ടുപോകുന്നുണ്ട് കാരണം ഇതുവരെ കൂട്ടി രണ്ട് മൂന്ന് ദിവസം മുന്നെ കൂട്ടി മൈസൂറ് പോയി കൊണ്ടുവന്ന് കൂട്ടിയിട്ട് അത് നമ്മള് വരും മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അതിന് എൺപത് രൂപ നൂറ് രൂപയെന്ന് പറഞ്ഞാൽ നമ്മള് സാധനം കുറച്ചെങ്കിലും മേടിച്ച് വീട്ട് കൊണ്ടുവെക്കും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ചീഞ്ഞുപോയി ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാകും ഇത് നമ്മള് പച്ചക്കറിയൊക്കെ ഹോൾ സെയിൽ എടുക്കുകയാണെങ്കിൽ നമ്മള് പോയിട്ട് എടുക്കുകയാണെങ്കില് നമുക്ക് നല്ല ലാഭവും ആയിരിക്കും പിന്നെ വിലയും കുറവായിരിക്കും അതുപോലെതന്നെ ഓൺലൈനിൽ നമ്മള് ഡ്രെസ്സുകൾ ഒക്കെ വരുത്തുന്നില്ലേ ഡ്രെസ്സുകൾ വരുത്തുന്നത് പിന്നെ ഓൺലൈനിൽ കൂടി നമുക്ക് സൗകര്യമത് കൂടുതൽ അതാണ് ഓൺലൈനിൽ കൂടി വരുത്തുകയാണെങ്കില് നല്ല ഡ്രസ്സുകളുണ്ട് ചിലപ്പോൾ മാത്രമേ അത് ഗുണം ഇല്ലാത്ത ഡ്രെസ്സുകൾ വരുകയുള്ളു അല്ലാത്ത എല്ലാം ഓൺലൈനിൽ വരുത്തുന്നുണ്ട് വണ്ടിക്കൂലി നമുക്ക് ലാഭിക്കാം ചായ കുടിക്കുന്നത് ലാഭിക്കാം ഒരു ടൗണിൽ പോകുകയാണെങ്കിൽ നമുക്ക് എത്ര ഉറുപ്പിക ചിലവിണ്ട് ഒരു ദിവസം നമ്മള് പോയാൽ വെറുതെ വരുമോ ചായ കുടിക്കുന്നതിനും കൂടി കൂട്ടി പത്ത് ഇരുന്നൂറ് ഉറുപ്പിക നമുക്ക് ചിലവ് ഉണ്ടാകും ഓൺലൈനിൽ ആണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഫോണും വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്താൽ നമുക്ക് ഓൺലൈനിൽ വീട്ടിൽ കൊണ്ടുത്തരും അതിൻ്റെ സർവീസ് ചാർജ് മാത്രം കുറച്ച് എന്തോ ഈടാക്കുന്നെയുള്ളൂ അതാണ് നമുക്ക് ലാഭം